കൂത്തുപറമ്പ് കുനിയിൽ പാലം എന്ന് പറയുന്ന ഗ്രാമത്താണ് ഞാൻ നിൽക്കുന്നത് അതായത് കൂത്തുപറമ്പ് ടൗണിൽ നിന്നും ഏകദേശം ഒരു പത്ത് മിനുട്ട് ദൂരം മാത്രമേ എൻ്റെ നാട്ടിലേക്ക് ഉള്ളൂ അതുകൊണ്ടു തന്നെ ഞങ്ങളുടെ കൂത്തുപറമ്പ് ടൗണിലാണ് ബാങ്കുകളും എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും ഉള്ളത് അപ്പോൾ ഞങ്ങൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് ബാങ്കുകളിലേക്ക് വരാൻ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല അതുപോലെ തന്നെ പ്രായമായ ആൾക്കാരെ ആവശ്യങ്ങൾ അതായത് പെൻഷൻ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി വരാൻ ഇവിടെ കളക്ഷൻ ഏജൻറ്മാരുണ്ട് അതായത് ഓരോ ബാങ്കിന്റെയും കീഴിൽ വർക്ക് ചെയ്യ് ജോലി ചെയ്യുന്ന കളക്ഷൻ ഏജൻറ്മാർ അപ്പം അവരാണ് ഇങ്ങനെ ഈ പ്രായമായവർക്ക് അവരുടേതായിട്ടുള്ള പണങ്ങൾ കൊണ്ട് കൊടുക്കുകയും അതായത് പെൻഷൻ്റെ തുക കൊടുക്കുക അങ്ങനെയുള്ള അത് അല്ലെങ്കിൽ ബാങ്കുകളുടെ വക അവർ നിക്ഷേപങ്ങൾ അത് സ്വീകരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കളക്ഷൻ ഏജൻറ്മാരാണ് അവർക്ക് അവർ അവരുടെ കാര്യങ്ങൾ വൃത്തിയായും വ്യക്തമായും ചെയ്യുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇവിടുത്തെ പ്രായമായവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലാതെ തന്നെ ബാങ്ക് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്